ഹലോ ഏട്ടാ പൊറോട്ടക്കന്നാ പൈസ എത്രയാ പൈസ ചിക്കൻ കറിയും ഒരഞ്ച് പൊറോട്ടയും ആ എത്രയാ മുന്നൂറ് രൂപയോ ഉം ഇത്ര വലിയ പൈസയോ അത് ഞാൻ ഈ വഴി പോവുമ്പോൾ ഭക്ഷണം കണ്ടിട്ട് കയറിയതാണ് പൊറോട്ട ആ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടം ആണ് അതുകൊണ്ട് ഇറച്ചിക്കറിയും പൊറോട്ടയും വാങ്ങാമെന്ന് വിചാരിച്ചത് ഇത് നിങ്ങളൊന്ന് അവിടെ എത്തിച്ച് കൊടുക്കുവോ ഉം അതവര് പൊറക്കൊളം കോട്ടേഴ്സിലാണ് ത നിൽക്കുന്നത് അവിടെ കൊണ്ടുകൊടുത്താൽ മതി ഉം പൊറക്കൊളം കോട്ടേഴ്സിൽ ഒന്നാമത്തെ റൂമിൽ പേര് സെറീനാന്നാണ് ആ അവർക്ക് ഭയങ്കര ഇഷ്ടം ആണ് പൊറോട്ട പൊറോട്ടയും ഇറച്ചിക്കറിയും ഉം അവർക്ക് എവിടെ കണ്ട് കഴിഞ്ഞാലും അവർക്ക് പൊറോട്ട ഇഷ്ടം ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോവുമ്പോൾ പൊറോട്ട വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് ആ അതുകൊണ്ട് നിങ്ങളൊന്ന് അവിടെ കൊണ്ട് കൊടുക്കുവോ അനക്ക് സമയം ഇല്ലാഞ്ഞിട്ടാണ് ആ പിന്നെ ആ അഞ്ച് പൊറോട്ടയും രണ്ട് കറിയും മതി ആ വേറെ വേറെ എന്താണ് ഉള്ളത് പൊറോട്ട അല്ലാതെ ഉഴുന്ന് വടയോ രണ്ട് ഉഴുന്ന് വട ഇങ്ങ് തന്നേ ആ രണ്ട് പഴംപൊരി ഇങ്ങ് തന്നേ ഉം വേറെ എന്താണ് വേറെ പൈസ ഞാൻ തരാം നിങ്ങൾ അവരോട് വാങ്ങണ്ട ഞാൻ തരാം പൈസ ആ നിങ്ങൾ അവർക്ക് അവിടെ എത്തിച്ച് കൊടുത്താൽ മതി ആ പൊറക്കൊളം കോട്ടേഴ്സിൽ തന്നെ ഒന്നാമത്തെ റൂമാണ് ഫസ്റ്റിൽ ആ താഴത്തെ നില ആ അവിടെ കൊണ്ടുകൊടുത്താൽ മതി ഞാൻ തന്നതാണെന്ന് പറഞ്ഞാൽ മതി പൈസ വാങ്ങേണ്ട ആ ഉം അത് നിങ്ങൾ അവിടെ കൊണ്ടുകൊടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി ആ ഞാൻ പറഞ്ഞോളാം അവരോട് ഭക്ഷണം കൊണ്ടോന്നിങ്ങന്ന് ആ ആ കോ എല്ലാ സാധനവും ഇല്ലേ ആ പൊറോട്ട ഉണ്ട് ഇറച്ചികറി ഉഴുന്നുവട പഴംപൊരി എല്ലാം ആ അതവിടെ കൊടുത്താൽ മതി നിങ്ങൾ അവിടെ കൊടുത്തിട്ട് നിങ്ങളിങ്ങ് പോരൂ ഉം പൈസ ഞാൻ തരാം പൈസ ഞാൻ തന്നെന്ന് പറഞ്ഞേ പേര് സെറീന ആ വേറെ എന്താ സ്ഥലം മനസ്സിലായില്ലേ ആ നിങ്ങൾ അവിടെ കൊടുക്കൂല്ലേ

ഇറച്ചികറിയാണേ ആ പഴംപൊരിയും ഉഴുന്ന് വടയും പൊറോട്ടയും ആ

വേറെ നിങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവളെ വിളിച്ച് പറയാം ആ എന്നാൽ ശരി പൈസ ഞാൻ തന്നെന്ന് പറഞ്ഞേ ആ